ഒന്നുണ്ട് എൻ്റെ എൻ്റെ അത്ര സ്വാധീനിച്ച ആൻറ്റപ്പൻ ആട്ട്സ് ഇൻസ്റ്റയിലെ ഒരു പ്രമുഖ ഇൻഫ്ലുവൻസർ ആണ് അത്യാവശ്യം ഫേമസ് ആണ് പുള്ളിയുടെ ചിത്രരചന എനിക്ക് വളരെയ അധികം ഇഷടമാണ് പേന വച്ചും പെൻസിൽ വച്ചും കുത്തി വര ഓൺലൈൻ പ്ലാറ്റ്ഫോം അത് എല്ലാത്തിനും വളരെ ഭംഗിയോടെയും കൃത്യതയോടെ അച്ചടിച്ചു വച്ചു എന്നൊക്കെ പറയാം പ്രിൻ്റ് എടുത്തത് പോലെ അത്രയും കൃത്യമായിട്ട് പുള്ളി ചിത്രം വരയ്ക്കും ആ ഒരു ചിത്ര പുള്ളിയുടെ ചിത്രരചന വളരെയധികം സ്വാധീനിച്ച ഒരു ചിത്രരചനയാണ് എല്ലാ ടൈപ്പും മന്ഷ്യന്മാരെങ്കിൽ മന്ഷ്യന്മാർ അല്ലാത്തെ എങ്കിൽ അല്ലാത്ത മൃഗങ്ങൾ മനുഷ്യൻ നേച്ചറ് എല്ലാ രീതികളും ചിത്രങ്ങളും പുള്ളി വരയ്ക്കുകയും അതിമ്മ ചെയ്യാനും അതല്ല ഫോട്ടോഗ്രാഫി വളരെ വൃത്തിയുള്ള ഫോട്ടോഗ്രാഫി അപ്പം ഫോട്ടോഗ്രാഫിയാണ് പുള്ളീടെ എന്നു പറഞ്ഞാൽ ഭയങ്കര എൻ്റെ ഒരു ഭയങ്കര പ്രിയപ്പെട്ട ഒരു ഇൻഫ്ലുവൻസറാണ് വളരെ അധികമായിട്ട് എന്നെ സ്വാധീനിച്ച കലാരൂപങ്ങളും കലാകാരനുമാണ് ആൻറ്റപ്പനർട്സ് അത് നല്ല വൃത്തിയോടെ ചിത്രം വരയ്ക്കും നല്ല കൃത്യതയാർന്ന ചിത്രം ഒരു വർക്ക് കാര്യങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് തന്നേ ചെയ്തു കൊടുക്കുന്ന രീതിയും അധികം പണി പൈസയൊന്നും വാങ്ങാത്ത ഒരു ചിതരെചനയും പല പല പല കോണ്ടസ്റ്റുകൾ അടിച്ചിട്ടുണ്ട് പുള്ളി അത്രയും വൃത്തിയുള്ള ചിത്രരെചനയും ആസ്വാദനം ഭാവം ചിത്രരചനയും പുള്ളിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പുള്ളിയുടെ ഒരു മികച്ച ഫാനാണ് അതാണ് അൻറ്റപ്പനാട്സ് എൻ്റെ ഒരു എന്നേ സ്വാധീനിച്ച ചിത്രകലാകാരൻ